മറ്റുള്ള ഭാഷകള് കേവലം ധാത്രിമാര് മര്ത്ത്യന്നു പെറ്റമ്മ തന് ഭാഷ താന് നമ്മൾ എപ്പോഴുമൊരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന് ശ്രമിക്കുമ്പോഴത്തേക്കും സ്വന്തം മാതൃഭാഷയുടെ ഇമ്പോട്ടന്സ് നമുക്ക് നമ്മൾ മാതൃഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം മാത്രമാണ് നമ്മക്കെന്താണോ ആശയം അത് കംബ്ലീറ്റായിട്ട് നമുക്ക് മറ്റൊരാളിലേക്ക് കണ്വേ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ മലയാളി എന്നുള്ള നിലയ്ക്ക് മാതൃഭാഷ മലയാളം എനിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷെ പാശ്ചാത്യ ഭാഷകളുടെ കടന്നുകയറ്റത്താൽ ഇപ്പോൾ നമ്മുടെ യുവതലമുറയ്ക്കും അതുപോലെത്തന്നെ പഴയ തലമുറയ്ക്ക് പോലും കേവലം ഒരു സെന്റെന്സ് പോലും കംബ്ലീറ്റായിട്ട് മലയാളത്തിൽ സംസാരിക്കാന് പറ്റുന്നില്ലായെന്നുള്ളതൊരു യാഥാര്ത്ഥ്യം തന്നെയാണ് പക്ഷെ അതുകാരണം ഒരിക്കലും മലയാളത്തിന്റെ മൂല്യമോ അതിനോട് നമുക്കുള്ളൊരു സ്നേഹമോ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല മലയാളം തീര്ച്ചയായും ഇമ്പോട്ടന്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക് വായിക്കാനും എഴുതാനും അറിയണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാല് ഈ ഗ്രാമ്യഭാഷകളും മലയാളവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഓരോ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും മലയാളം എന്നുള്ള ഭാഷ സംസാരിക്കുന്നത് തന്നെ വ്യത്യസ്ഥ രീതികളിലാണ് അത് പ്രദേശം മാറുന്നതനുസരിച്ച് മാറാം ഇല്ലെങ്കില് മനുഷ്യന്മാരുടെ മനുഷ്യന്മാർ മാറുന്നത് അനുസരിച്ച് പോലും ഓരോ ഒരു പ്രദേശത്താണെങ്കിൽക്കൂടി ആ മാറ്റം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അതിന് കാരണം അവരുടെ വിദ്യാഭ്യാസ രീതിയോ അവരുടെ കുടുംബങ്ങളിലവർ സംസാരിച്ച് വരുന്ന രീതിയോ അവർ കേട്ട് പഴകിയ മലയാളത്തിന്റെ രീതിയോ ഒക്കെത്തന്നെ ആയിരിക്കും ഇപ്പോൾത്തന്നെ തിരുവനന്തപുരം എന്ന് ഞാന് പുറത്ത് എവിടെയെങ്കിലും കേരളത്തിനുള്ളിൽത്തന്നെ ഞാൻ എവിടെയെങ്കിലും പോയി പറഞ്ഞാല് പോലും തിരുവനന്തപുരംകാർ സംസാരിക്കേണ്ട ഭാഷ ഇതാണ് എന്നുള്ള രീതിക്ക് അതിന്റെ ഒരു ആക്സെന്റ്റും ഡയലെറ്റും ഒക്കെ വരുന്ന രീതിക്ക് ആള്ക്കാരുടെ മനസ്സിൽ പ്രീകണ്സീവ്ഡായിട്ടുള്ളൊരു നോഷനുണ്ട് പക്ഷെ ഒരിക്കലും ഒരു തിരുവനന്തപുരംകാരി അങ്ങനെ മാത്രമേ സംസാരിക്കാവൂ എന്നുള്ളത് നിര്ബന്ധമുള്ള കാര്യമല്ല ഇപ്പോൾ തൃശ്ശൂരിനാണെങ്കിൽപ്പോലും അല്ലെങ്കിൽ പാലക്കാടിനാണെങ്കിൽപ്പോലും ഒക്കെ അവരുടേതായ ഒരു തനത് ഭാഷ എന്നുള്ള രീതിയ്ക്ക് കണ്ട് വരുന്ന ഒരു കോണ്സെപ്റ്റൊണ്ട് പക്ഷെ ഒരിക്കലും എല്ലാവരും അതേ രീതിക്കല്ല സംസാരിക്കുന്നത് എന്നിരിന്നാല്ക്കൂടി ഈ തനത് ഭാഷ അവരുടെ ഒരു ഐഡന്റിറ്റിയായിട്ട് മാറുന്ന സ്ഥലങ്ങൾ നമുക്ക് ഐഡന്റിറ്റിയായിട്ട് മാറുന്ന ഒരു പ്രവണത നമുക്ക് കാണാന് വേണ്ടി പറ്റും അതിൽ ഒരാളൊരിക്കലും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഒരാളൊരിക്കലും അതൊരു കുറവായിട്ട് കാണുകയല്ല പക്ഷെ പകരം അതിൽ അവർ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത് പ്രാദേശിക ഭാഷയോ ഈയൊരു ഗ്രാമ്യഭാഷയോ മലയാളത്തില് നിന്നും വളരെ അധികം ഈയൊരു അക്സന്റിലൊക്കെ ഡിഫ്രന്സുണ്ടെങ്കിൽപ്പോലും നമ്മള്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മറ്റൊരാൾക്ക് ഒരു മലയാളിക്ക് മനസ്സിലാവുന്ന രീതിക്ക് തന്നെയായിരിക്കും വാക്കുകളും അതിന്റെ അര്ത്ഥങ്ങളുമൊക്കെ പോകുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ആ ഒരു ഡിഫ്രന്സ് വല്യ രീതിക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം